എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ജടായൂർ പാറ അവിടെ അവിടെ കാണാൻ നല്ല രസമാണ് അടുത്തായത് അടുത്തായതു കൊണ്ടു തന്നെ ഇപ്പോൾ ഞാനൊരു ഏഴെട്ടുപത്തുവട്ടം അവിടെ പോയിട്ടുണ്ട് നല്ല രസമാണവിടെ കാണാൻ അവിടെ രാമൻ സീതയിൻ സീതയെ സീതയെയും കൊണ്ട് ലങ്കയിലേക്കു പോയപ്പോൾ ചിറകൊടിഞ്ഞു വീണു എന്നൊരു സാരാംശമാണ് അതിനെ അവിടെ ഉള്ളത് പിന്നെ അടുത്തുള്ളത് അഴീക്കൽ ബീച്ചാണ് ആ ബീച്ചിന് നല്ല രസമാണ് കാണാൻ ബീച്ചിലൊരുപാട് കുട്ടികളും എല്ലാവരും ആ ബീച്ച് കാണാൻ വരുന്നുണ്ട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അഴീക്കൽ ബീച്ച് പിന്നെ ഉള്ളത് പിന്നെ മലമേൽ പാലം എൻ്റെ വീടിനു തൊട്ടടുത്താണ് മലമേൽ പാലെയെന്ന് പാലത്തിലാണെങ്കിൽ നമുക്കവിടെ നിന്നു ഫോട്ടോ എടുക്കാനും ഫോട്ടോ എടുക്കാനും അവിടെ നിന്നു വർത്താനം പറയാനും കാഴ്ചകൾ കാണാനും എല്ലാം നല്ല സന്തോഷമോടെയുള്ള സ്ഥലമാണ് മലമേൽ പാല പിന്നേ ഉള്ളത് കുടുക്കത്ത് പാറ ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് മൊത്തം പാറകളെ കൊണ്ടു നിറഞ്ഞ സ്ഥലമാണേ കുടുക്കത്ത് പാറയിലാണെങ്കിൽ നല്ല രസമാണ് ആ കുന്നിൻ്റെ മുകൾവശത്ത് പോയിരുന്നു

ഇതു മെയിനായിട്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വീട്ടിൽ പാറകൾ മാത്രമേ ഉള്ളുവെന്ന്

ഇപ്പോൾ ഇവ ഇപ്പോൾ ഇപ്പോൾ മഴയായതു കൊണ്ട് അഴീക്കൽ ബീച്ചുകളിലൊന്നും പോകാറില്ല

ഈ കൊല്ലം ജില്ലയിൽ ഞങ്ങൾ കൊല്ലം ജില്ല ആയതു കൊണ്ട് ആ ജില്ലയിലുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെയെന്നാണ് വിനോദ സഞ്ചാരത്തിനായി എവിടെ നിന്നെല്ലാ ആൾക്കാരാണ് വരുന്നതെന്നറിയാമോ തിരുവനന്തപുരം കൊല്ലം പത്തനംത്തിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഈ പന്ത്രോ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാരാണെങ്കിൽ വലിയ വലിയ വണ്ടി ട്രാവലർ

നമുക്കെപ്പോഴും പോകുന്നത് ഇഷ്ടമാണല്ലോ ഞങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരുമായിട്ടും പോകാറുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണവിടെ കാണുന്നത് കാരണം അവിടെപ്പോയിരിക്കുമ്പോൾ വേറൊരറ്റ്മോസ്ഫിയറാണല്ലോ നമുക്ക് സന്തോഷത്തോടെ കുറച്ചു നേരം പങ്കു വെക്കാനും സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ് അവിടെയൊക്കെ വിനോദസഞ്ചാരത്തിന് വിനോദ വിനോദസഞ്ചാരം പറയുമ്പോൾത്തന്നെ നമുക്കൊരു എഞ്ചോയ്മെൻറ്റാണല്ലോ ഞങ്ങളെല്ലാവരും എഞ്ചോയ്മെൻറ്റിനു പോകാറുണ്ട് സന്തോഷത്തോടെ പോകാറുണ്ട് പിന്നെന്തുവാ പിന്നെ സ്ഥലങ്ങളുണ്ടോയെന്നു ചോദിച്ചാൽ പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കിതുവരെയും പോകാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് പിന്നില്ല പറഞ്ഞ കണക്ക് വെക്കേഷനൊക്കെ ആകുമ്പോഴെ നമ്മളെവിടെയെങ്കിലും പോകത്തുള്ളൂ ഇപ്പോൾ വെക്കേഷനൊന്നുമല്ലല്ലോ ഇപ്പം പിന്നെ കാലാവസ്ഥയും കൂടി അനുകൂലമാകണ്ടേ ഈ മഴയത്തും കാറ്റത്തും ഒക്കെ എങ്ങനെ നമ്മൾ ദൂരെയൊക്കെ പോകുന്നതും അടുത്തുള്ള സ്ഥലത്തെല്ലാം പോകാറുണ്ട് ആ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റടുത്തുള്ള മെയിൻ സ്ഥലങ്ങൾ പിന്നെ ഇതാണ് പറയണതൊന്നു നമുക്ക് വിനോദ വിനോദത്തിനു പോകുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻറ്റെല്ലാം ഹാപ്പി ആയിട്ടു പോകാൻ പറ്റുന്നുണ്ടല്ലോ വെറുതെ വീട്ടിലിരുന്നു ബോറടിക്കണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ടും കുഞ്ഞുങ്ങളും വരാറുണ്ട് പേരൻസും ഫ്രണ്ട്സും റീലേറ്റീവ്സും എല്ലാവരും വരാറുണ്ട് ഞങ്ങളെല്ലാവരും പോകാറുണ്ട് ഞങ്ങൾക്കു ഭയങ്കര സന്തോഷമാണ് ആ വീട്ടിൽ നിന്ന് കുഞ്ഞുപിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോ കാരണം യാത്ര പോകുകയെന്നു പറയുന്നത് വിനോദ സഞ്ചാരത്തിനു പോകുന്ന ഭയങ്കര ഇഷ്ടമാണല്ലോ ആ ഇപ്പോൾ കഴിഞ്ഞാഴ്ച ഞങ്ങൾ ജടായു പാറയിൽ പോയായിരുന്നു അവിടെ നല്ല രസ ഒരുപാട് റൈടൊക്കെയുണ്ട് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും കറങ്ങാനായാലും ഇരിക്കാനായാലുമെല്ലാമുണ്ട് നമ്മൾ പിന്നെ സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മളവിടെയെല്ലാം പോകുന്നു ഇനിയിപ്പോൾ ഒന്നു പോകണം ഇനിയിപ്പം രണ്ട് ഓണത്തിനു മുൻപൊന്നു പോകണം സന്തോഷമാണ് ഒരുപാട് സന്തോഷമാണ് പിന്നില്ലേ പറഞ്ഞ കണക്ക് നമുക്കെല്ലാവർക്കും കൂടിയൊന്നു പോകുക കിട്ടിയ അവസരമാണല്ലോ റ്റൂർ പോകുന്നെന്നും പറഞ്ഞാൽ എല്ലാവർക്കുമിഷ്ടമാണല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും റ്റൂർ പോകാൻ വേണ്ടിയിരിക്കുന്നു പിന്നെ എല്ലാം സന്തോഷം നല്കുന്നത് ആയതു കൊണ്ട് പിന്നെ വെക്കേഷൻ വരെ കാത്തു നിൽക്കുന്നില്ല അതിനുമുമ്പ് ഞങ്ങൾ പോകും ഞങ്ങളെല്ലാവർക്കും പോകാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഇനി അടുത്ത മാസം പോകണം അതിൻ്റെ അങ്ങേ മാസം പോകണം ഇനി രണ്ടു മൂന്നു മാസം വെക്കേഷനൊക്കെ കഴിയുമ്പോഴത്തേന് ഞങ്ങൾ പോകും പിന്നെന്തുവാണ് പിന്നെ ആ പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഈ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും പോകാറ് ദൂരെയുള്ള സ്ഥലത്ത് നമ്മൾ പോകത്തില്ല കുടുക്കത്ത് പാറ മലമേൽ പാറ ജടായു പാറ ജടായുപ്പാറയിൽ പോയിരുന്നു കാണുമ്പോൾ നമ്മളീ തിരുവനന്തപുരം ബസ്സിൽ കയറി പോകുമ്പോൾ നമുക്ക് അവിടെ നിന്നു കാണാൻ പറ്റും ഈ മല എവിടെയും വരെ ഉണ്ട് ആ ഗരുഡൻ്റെ ഫോട്ടോയും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ പോയി കാണാറുണ്ട് അത് സന്തോഷം തരുന്നതാണ് പിന്നെന്തുമാണവിടെ ഒത്തിരി ചെടികളും പൂക്കളും വരുന്ന വഴിക്കു മലകളും മലകളും താഴ്വാരങ്ങളും ചെടികളും പൂക്കളും എല്ലാം നമുക്ക് കാണാൻ പറ്റും നമുക്ക് സന്തോഷം തരുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമെന്നു പറയുന്നത് അവിടെ കയറുമ്പോഴുള്ള അവിടെ നി നിന്നും മുകളിൽ നിന്നും താഴോട്ടു നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ബസ്സിൽ പോകുമ്പോഴും നമുക്കാ സ്ഥലങ്ങൾ കാണാറുണ്ട് ആ ഏറ്റവും സന്തോഷം നിറഞ്ഞത് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ തന്നെയാണ്